ജോലിയെന്നു പറഞ്ഞാൽ ഞാനെന്റെ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ വർക്കാണ് ചെയ്യുന്നത് അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ എന്താ പറയുക പോസ്റ്റ് ഉണ്ടാക്കി അത് സ്റ്റാറ്റസ് വച്ച് അത് എല്ലാവരും ഇങ്ങനെ കണ്ട് ആ അക്കൌണ്ടിലേയ്ക്ക് ജോയിൻ ആയി അവർക്ക് ട്രയിനിംഗ് കൊടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ അവരുടെ പ്രൊമോഷൻ വർക്ക് അങ്ങനൊരു പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ ഓൺലൈനായിട്ട് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു പിന്നെയെന്താ അതുപോലെത്തന്നെ നമ്മൾ ഇപ്പോഴൊരു ജോലി ആ ഒരു ജോലി പ്രൊമോഷൻ ആക്റ്റിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിനകത്തേയ്ക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്ത് ആ ജോലി ചെയ്യുന്നു